ഞങ്ങൾ വൈറ്റ് കർട്ടന്സായിരുന്നു ഞങ്ങളുടെ വീടിന് വേണ്ടീട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഓൺലൈൻന്നാണ് മേടിച്ചത് അത് കൊണ്ടൊരിക്കലും നമ്മളത്രേം വലിയ ക്വളിറ്റിയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വന്ന സമയത്ത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റായിരുന്നു അതിന്റെ മെത്തീരിയലാണെങ്കിലും നല്ല വെല് മേയ്ഡ് മെറ്റീരിയലായിരുന്നു കാണാന് തന്നെ നല്ല ഭംഗിയായിരുന്നു അത് വീടിന് തന്നൊരു സൗന്ദര്യം ഐശ്വര്യമൊക്കെ കൂട്ടിയൊരു ലുക്കായിരുന്നു അത്കൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഞങ്ങൾക്ക് കിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം കര്ട്ടന് അത് ഓരോ ഭാഗത്തും ഓരോ രീതിയിലുള്ള ഒരു ഡിഫ്രൻറ്റായിട്ടുള്ള ഡിസൈന്സക്കെയാണ് മേടിച്ചിരുന്നതപ്പം പക്ഷേ നല്ല ക്വാളിറ്റിയിൽ എല്ലാ ഡിസൈന്സും നല്ല രസമായിട്ട് പ്രിന്റടായിട്ടുള്ളത് വന്നു